എനിക്കിഷ്ടപ്പെട്ട പുസ്തകം എന്ന് പറഞ്ഞാൽ ആരാചാരാണ് ആരാചാരെന്ന് വെച്ചാൽ കെ ആ കെ ആർ മീരയുടെ ആണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് നോബൽ സമ്മാനവും ബുക്ക് എന്താ പറയുക കേരളാ സാഹിത്യ നദി സാഹിത്യ അക്കാദമി അവാർഡും അതേപോലത്തെ ഒരുപാട് അവാർഡുകൾ നേടിയിട്ടിള്ള ചിത്ര ഒരു നോവലാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് എഴുത്തുകാരി പറയുന്നത് പ്രണയത്തെ പ്രണയമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത്ര മനോഹരമാണ് എന്ന് വെച്ചാൽ ഭയങ്കര മരണത്തേക്കാൾ അനിശ്ചിതത്വം പ്രണയത്തിനാണെന്നാണ് പറയുന്നത് സോ അത്രയ്ക്ക് പ്രണയിച്ച് ഒരു പ്രണയത്തിൽ കൂടെയാണ് എഴുത്തുകാരി സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ ആരാചാരെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് മരണത്തിൻ്റെ ഒരു ഇതായിട്ടാണല്ലോ കാണുന്നത് അപ്പം ആ മരിക്കുന്ന അവസാന നാളുകളില് ആരാണ് എന്താ പറയുക കൊല്ലാൻ വേണ്ടി മരിക്കാൻ കിടക്കുന്ന ആള് ആരാണ് കൊല്ലാൻ വേണ്ടി അങ്ങനെ അങ്ങനെ അവർക്ക് പോലും കൊല്ലാൻ വേണ്ടി മടിയായിട്ട് അവസാനം അങ്ങനൊരു ഇതിലാണ് കഥ എൻഡ് ചെയ്യണത് എന്ന് വെച്ചാൽ അടിപൊളി കഥയാണ് വായിച്ചതില് വെച്ചിട്ട് ഏറ്റവും മനോഹരമായി എഴുത്തുകാരി അതില് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രണയത്തിനേയും അതുപോലെ തന്നെ മരണത്തിനേയും അങ്ങനെ ഒരുപാട് കാര്യങ്ങള് പറയാൻ ശ്രമിച്ചൊരു നോവലാണ് കെ ആർ മീരയുടെ ആരാചാർ